പൊരിയുന്ന പ്രദ് ഗ്രാമപ്രദേശത്താണ് സഹകരണ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാർഷിക ആളുകൾക്ക് അൻപത് കൊല്ലം മുമ്പ് സ്ഥാപിതമായ കാർഷിക സഹകരണ സ്ഥാപനമാണ് അമ്പൂരി സഹകരണ സംഘം ഈ സംഘത്തിലെ അംഗമാണ് ഞാന് കുറച്ച് കാലം ഞങ്ങള് ഇത് ലോണെടുക്കുകയും തിരിച്ചടക്കുകയും എല്ലാം ചെയ്ത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പഴ്ത്തേക്ക് എൻ്റെ ലോൺ കൊടുക്കാതെ ആയി പിന്നെ കുറച്ച് പേരതിനെ പലിശ അടച്ച് പുതുക്കിക്കൊണ്ടിരുന്നു അങ്ങനെ പോവുന്നില്ലല്ലോ മറ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് സഹകരണ സ്ഥാപനത്തിൽ നിന്നും ലോൺ കൊടുക്കുവാനോ കർഷകർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നല്കുവാനോ സാമ്പത്തിക സഹായം ചെയ്യുവാനോ സഹകരണ സ്ഥാപങ്ങൾക്ക് സാധിക്കാതെ വന്നു അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ് പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ ഉള്ളത് മാസ ചിട്ടികളാണ് അവര് നടത്തി വരുന്നത് അതും മറ്റ് കൂട്ട് നടന്ന് പോകുന്നു സാമ്പത്തിക ഇടപാടുകളായി അത് മാറുന്നു കർഷകരെ സംരക്ഷിക്കാനോ അവരു ആയിട്ട് നോക്കി നടത്തുവാനോ അവർക്ക് സാധിക്കുന്നില്ല ആ ഒരു മേഖല അങ്ങനെ പോവുകയാണ് അത് സഹകരണ സ്ഥാപനങ്ങളില് ഒന്ന് മാത്രമേ ഉള്ളു കർഷകർക്ക് ഇപ്പ ഗുണകരമായ ഒരു പ്രസ്ഥാനവും ഈ ബാങ്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല